കോഴിക്കോട് ജില്ലയിലെ പ്രധാനമായിട്ടുള്ള വ്യവസായങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് ഇപ്പം കൃഷി ആണെങ്കിലും പല രീതിയിലുള്ള ഉൽപാദനം ആണെങ്കിലും നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വ്യവസായ മേഖലയിൽ ഒക്കെ നല്ല രീതിയിൽ മുന്നിട്ടു നിൽക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ വ്യവസായങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇൻ്റർലോക്ക് ഇടണമെങ്കിൽ തന്നെ റബ്ബറും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ റബ്ബറിൻ്റെ തോട്ടങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ആ റബ്ബർ ഒക്കെ ശേഖരിച്ചിട്ട് റബ്ബർ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മള് വാങ്ങിക്കൊണ്ടു വരിക കോഴിക്കോട് ജില്ലയിലെ അതിർത്തിയിലുണ്ട് ഇപ്പോൾ അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലപ്പുറം ആ ഒരു ഭാഗത്തും നമുക്ക് ഇതിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ജെ കെ ടയേഴ്സ് ഇതൊക്കെ മെയിനായിട്ട് കോഴിക്കോട് ജില്ലയിലാണ് കൂടുതൽ ആയിട്ടും ഉൽപാദിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പലരീതിയിലുള്ള മേഖലകളിലും എല്ലാ തരത്തിലും പ്രാവീണ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ കൈരളി സ്റ്റി എം സ്റ്റീൽ കമ്പി അങ്ങനത്തെ ടി എം ടി കമ്പി അങ്ങനത്തെ കമ്പികളുടെ ഒക്കെ ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോട് ജില്ലയാണ്